പത്താം ക്ലാസും പ്ലസ്ടുവും എന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഞാൻ ബി സി എ എന്ന കോഴ്സാണ് ചെയ്തത് ബി സി എ എന്ന കോഴ്സ് ചെയ്തതിനു ശേഷം പി എസ് സി എഴുതി ഇന്ന് ഞാനൊരു ഗവൺമെൻ്റ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു റേഡിയോഗ്രാഫർ ആയാണ് ഞാൻ ജോലി ചെയ്യുന്നത് റേഡിയോഗ്രാഫർ എന്നു പറഞ്ഞാൽ എക്സറേ അതുപോലെ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ പോലുള്ള കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു ടെക്നീഷ്യൻ ആണ് ഇന്ന് ഞാൻ ഈ എക്സറേ പണ്ടുമുതൽക്കേ നമ്മുടെ നാട്ടിലുള്ളതാണ് സി ടി സ്കാൻ എം ആർ ഐ പോലുള്ളവ പുതിയതാണെങ്കിലും അതെല്ലാം നമ്മൾ ഇന്ന് പഠിക്കുകയും അതിനു അതിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എക്സറേ എടുക്കാൻ നമ്മുടെ ജോലിയുടെ പേരാണ് റേഡിയോഗ്രാഫർ നമ്മൾ എക്സറേ ടെക്നിഷ്യൻ എന്നും വിളിക്കാറുണ്ട് ഞാൻ ഒരു ഗവൺമെൻ്റ് മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത് ഒരുപാട് തിരക്കുള്ള ഒരു ജോലിയാണ് ഇത് റേഡിയേഷനുമായി വളരെയധികം ബന്ധപ്പെട്ടു കിടക്കുന്നൊരു ജോലി കൂടിയാണ് എങ്കിലും വളരേ നല്ലൊരു ജോലിയായിട്ടാണ് ഞാനിതിനേ കണക്കാക്കുന്നത് അത്യാവശ്യം നല്ല രീതിലുള്ള ശമ്പളവും ജീവിത സാഹചര്യവും ഇന്നെനിക്കുണ്ട് ഇത്രയും നല്ലൊരു ജോലി കിട്ടാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് ബി സി എ എന്ന കോഴ്സാണ് ഞാൻ ഗവൺമെൻ്റ് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ബി സി എ എന്ന കോഴ്സ് കമ്പ്ലീറ്റ് മുഴുവൻ അവസാനിപ്പിച്ചിരിക്കുന്നതും